ഹലോ ആരാണ് അതെയതെ ആരാണു വിളിക്കുന്നേ ആണോ എന്നാ പേരെന്നാ ഉം എവിടെയാണു വീട് ഏത് കൂട്ടായ്മയാണ് ഉം ഉം ഉം കെ എൽ എമ്മിനെക്കുറിച്ചൊക്കെ അറിയാ കേട്ടിട്ടുണ്ടോ അറിയാവോ അതിൻ്റെ കാര്യങ്ങളൊക്കെയെന്തൊക്കെയാണെന്ന് ഉം കെ എൽ എമ്മെന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെയൊരു തൊഴിലാളി പ്രസ്ഥാനമാണ് അപ്പോഴിത് ഇതിനൊരുപാട് ഇതിൽ പ്രവർത്തിക്കുമ്പോളൊരുപാട് ക്വാളിറ്റീസുണ്ട് പ്രത്യേകിച്ച് നമ്മള്ക്കൊരു നമ്മുടെ ദുശ്ശീലങ്ങളൊക്കെ മാറ്റുക നമ്മളൊരു സമ്പാദ്യശീലം ആരംഭിക്കുക മിതവ്യയം ചെലവു ചുരുക്കല് അതുപോലെതന്നെ നമ്മള് ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് പിന്നെ നമ്മള്ക്കു തന്നെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനു വേണ്ടിയുള്ള ചിട്ടികള് അതുപോലെതന്നെ ആഴ്ച നിക്ഷേപങ്ങള് കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ ലോൺ സൗകര്യങ്ങളൊക്കെയുണ്ട് അപ്പോള് അതും നമ്മുടെ ഇടവകയിലെ അംഗങ്ങളാണകത്ത് ഇത് നമുക്കിവിടെ നിലവിലിപ്പൊരു ആളുടെ മാത്രമേ ഒഴിവുള്ളു കാരണം ഇപ്പോള് ഇരുപതു പേരാണ് ഞങ്ങൾക്ക് മിനിമം വേണ്ടത് അച്ചന്മാരൊക്കെയിതിനകത്തുണ്ട് ഒരാ ഒരു പത്തൊൻപത് പേരായിപ്പോഴുള്ളത് ആ അപ്പോള് താങ്കൾക്ക് ഇതിനകത്തു ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ താങ്കളേക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കണം രണ്ടാമത് ഇപ്പൊരു മീറ്റിങ്ങില് നേരിട്ടൊന്ന് വരുക ങേ നമ്മളൊന്ന് മീറ്റിങ് സാധാരണ ഞായറാഴ്ച്ചയാണ് ഞായറാഴ്ച്ച ആറരയ്ക്കാണ് ആ അപ്പോആ മീറ്റിങ്ങിലൊക്കെയൊന്ന് സംബന്ധിക്കൂ ങേ നമുക്കാ മീറ്റിങ്ങിലിരുന്നാല് എല്ലാവർക്കും എല്ലാർക്കുവൊന്ന് പരിചയപ്പെടാമ്പറ്റും അപ്പോള് എല്ലാവരും അത് താങ്കളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കും ചോദിക്കും ങേ പിന്നെ കുടുംബം കുടുംബത്തിലെ ബാക്ഗ്രൗണ്ടൊന്ന് പറഞ്ഞേ കുടുംബാത്തിന്റെ അവസ്ഥയും സാഹചര്യവും ആ ആ ആ ആഹാ ആഹാ ആ അപ്പോള് സാലറി സാലറി കാണുമല്ലേ സാലറി കാണും ഉം ഉം ഉം

ഉം കെ എല് എം നല്ലൊരു സം അ കെ എല് എം നല്ലൊരു സംഘടനയാണ് പ്രത്യേകിച്ച് ഒരു സെൽഫ് ഹെല്പ് ഗ്രൂപ്പ് സ്വാശ്രയ സമിതിയാണ് അപ്പോഴതുകൊണ്ട് നമുക്ക് നമ്മള്ക്ക് വ്യക്തിപരമായിട്ടും നമ്മളൊരു കൂട്ടായ്മയായിട്ടും നില്ക്കും നമ്മുടേ പരസ്പരം സഹകരണം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മറ്റു പത്തൊമ്പത് പേരുടെയും സഹകരണം ഉണ്ടാവും എ തീർച്ചായിട്ടും നമ്മള് പലപ്പോഴും ഈ ഒറ്റപ്പെട്ടൊക്കെ കഴിയുന്ന സഹോദരങ്ങളില്ലാത്തവര് ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കൊക്കെ വല്ല്യൊരു ഹെൽപ്പാണ് പ്രത്യേകിച്ച് കുട്ടനാട്ടീന്നൊക്കെ വന്ന് ധാരാളം പേര് ഞങ്ങളുടെകൂടെയുണ്ട് ഉം അപ്പോള് ഇടവകയിൽ ഇടവകയുടെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുന്നതാണ് എല്ലാവരും മുൻകൈക്കാരന്മാല് നാലഞ്ചു പേരുണ്ട് പിന്നേ സൺഡേ അധ്യാപകര് നാലഞ്ചു പേരുണ്ട് പിന്നെയെല്ലാ എല്ലാം നല്ല നല്ലരീതിയിൽ പ്രവർത്തിക്കുന്ന ഇടവകയുമായി ബന്ധപ്പെട്ടും ഒക്കെ നല്ലരീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും ഹേ ആ അപ്പോള് മോസ്റ്റ് വെൽക്കം കേട്ടോ ആ എന്നാല് വീട്ടില് പൊയ്ക്കോ